ഹലോ ഹലോ ആ അതെ വീടും സ്ഥലവും കൂടി അല്ലേ ആ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വീട് എങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റീന് ലാക്സ് അല്ലേ ആ ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതായത് വാര്ക്ക വീട് അങ്ങനത്തെ എന്തെങ്കിലും വേണോ വാര്ക്ക വീട് മതി അല്ലേ ആ ആ ഓക്കെ ഓക്കെ നമുക്കിവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കാരണമെന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൗണ് ഏരിയയിൽ ഉണ്ട് പിന്നെ അല്ലാതെ ഉള്ളിലെക്കൊക്കെ ഉണ്ട് ഉള്ളിലേക്കാണോ കൂടുതലും വേണ്ടത് അതോ ടൗണ് ഏരിയയിലോ ഉം ആ അങ്ങനെ അല്ലേ ആ ആ ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്ക് റെഡി ആക്കാന്നെ ഉള്ളൂ നമുക്കിപ്പം കഴിഞ്ഞാൽ അതായത് ബേപ്പൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പം അവിടെ കുറച്ച് ഉള്ളിലേക്ക് അതായത് ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ഓവര് ഉള്ളിലേക്ക് അല്ല റോഡ്സൈഡിൽ തന്നെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് പതിനഞ്ച് സെന്റ് ആണ് ഉള്ളത് അവർ ചോദിക്കുന്നത് സെന്റിന് ഒരു ലക്ഷം വെച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തിന് മാത്രം കേട്ടോ വീടിന് വേറെയും വീടിന് ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് നമുക്കെന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു വരാം ആണ് അല്ലേ ഓക്കെ ഓക്കെ അപ്പം അത്രയാണ് ചോദിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വണ് ലാക്ക് തരും അല്ലേ ഓക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടു നോക്ക് ഇല്ലെങ്കിൽ അതില്ലെങ്കില് നമ്മുടെ കസ്റ്റഡിയിൽ വേറെ ഉണ്ട് മാഡം എന്ത് ചെയ്യുന്നതാണ് ഞാന് വാട്ട്സ്ആപ്പില് അയച്ചു തരാം എന്നാൽ ആ ഓക്കെ ആ ഓക്കെ മ്